ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നടത്താറുണ്ട് അപ്പം എൻ്റെ അച്ഛന് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇപ്പം സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോവുമ്പം ഫ്രണ്ട്സ് ചോദിക്കും ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് അപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയതെന്നു പറയുമ്പം റെസിപ്പി എന്നോട് ചോദിക്കാറുണ്ട് ഞാനിങ്ങനെ റെസിപ്പി പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഇപ്പോഴൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് മുളക് ചമ്മന്തിയാണ് അപ്പോൾ എല്ലാ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ പറയും മുളക് നമ്മൾ ചെറിയ എണ്ണയിൽ വറ്റൽമുളക് ചെറിയ എണ്ണയിൽ വാട്ടുക അതേപോലെത്തന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് വാട്ടുക ചെറിയ രണ്ടുമൂന്നു കറിവേപ്പിലേൻ്റെ ഇതളിടുക എന്നിട്ട് അതു വാട്ടി കുറച്ച് പുളി ഇട്ടിട്ട് വാട്ടി ആ അത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം എന്നിട്ട് അതിലേയ്ക്ക് തേങ്ങ ചിരവിയത് ഇടുക എന്നിട്ട് നമ്മൾ ഈ വഴറ്റിയതിൽ എണ്ണയും കൂടി അതിനകത്ത് ഒഴിച്ച് ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്യുമ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറ് അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു